ആറ് ഒൻപത് രണ്ടായിരത്തി ഏഴ് പത്ത് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആറ് ഒൻപത് രണ്ടായിരത്തി മൂന്ന് പതിമൂന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഒന്ന് അഞ്ച് രണ്ടായിരത്തി മൂന്ന്